ഹലോ ആ ആ ആ ഞാൻ ഞാൻ ഞാൻ സുനുവാണ് ഞാൻ വിളിക്കുന്നത് ഈ തോപ്രാംകൊടിന്ന് ആണ് വിളിക്കുന്നത് ഞാൻ എന്തിനാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ തോപ്രാംകുടിയിലെ ഈ പുതിയതായിട്ട് പണിയുന്ന ഒരു അമ്പലം ഇല്ലേ ഈ അമ്പലത്തിൻ്റെ ആ ഒ ഈ അമ്പലം അറിയാമല്ലോ അല്ലെ ഈ അമ്പലത്തിൻ്റെ ബ്രോക്കർ പിന്നെ കച്ചവടം സ്ഥലം കച്ചവടം ഒക്കെ നടത്തുന്നില്ലേ ആ ആ ആ അപ്പോൾ ഈ ഈ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ആ സ്ഥലം നോക്കുന്നത് സ്ഥലമായിട്ടോ ഇനി പതിനഞ്ച് സെൻറ്റൊ പത്ത് സെൻറ്റൊ സ്ഥലമായിട്ടോ ഇനി അതല്ലെങ്കിൽ കുഴപ്പം ഇല്ലാത്ത വീട് വീടും സ്ഥലവും കൂടെ കൂടിയായിട്ടോ പത്ത് പതിനഞ്ച് സെൻറ് സ്ഥലമായിട്ടാണ് നോക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം അവിടെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ടോ ആ ആ ആ ആ അമ്പലത്തിനടുത്ത് അവിടെ സെൻറിന് എത്ര വിലയൊക്കെ വരും ഏകദേശം അതെയല്ലേ ആ ആ ആ ആ അപ്പോൾ ഈ വലിയ സ്ഥലം ഒക്കെയോ ആ ആ ആ ആ ആ ആ ആ ആ അങ്ങനെ ഒരു എഴുപതിനൊക്കെ കിട്ടുമായിരിക്കും അല്ലേ ആ ആ ആ ആ ആ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഈ ഈ ചെറിയ പട്ടയുള്ള സ്ഥലമാണോ ആ ആ ആ ആ ആ ആ അപ്പോൾ ആ വെള്ളം വഴിയൊക്കെ ഉണ്ട് അല്ലേ വെള്ളം ആ ഈ കുഴൽ കിണർ ആ സാധാരണ കിണർ ആ ആ ആ നല്ല വെള്ളമുണ്ടല്ലേ ആ ആ ആ ആ ആ ആ എന്നാൽ അവിടെ ആ അപ്പോൾ ആ ഏരിയയിൽ എവിടെയെങ്കിലും ഈ വീടും സ്ഥലവും കൂടെ ആണെലും കുഴപ്പമില്ല ആ ഇനി അതല്ലെങ്കിൽ നല്ല സെൻറ് സ്ഥലം നല്ലത് ആണെങ്കിൽ അവിടെ ഒരു വീട് പണിയാൻ പറ്റുന്ന സെറ്റപ്പുള്ള സ്ഥലവും ആണെങ്കിൽ അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല എല്ലാം കൂടെ ഒരു അൻപതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ സെറ്റപ്പാക്കി തരുക ആണെങ്കിൽ ആ അതുതന്നെ ആ ആ വീടുണ്ട് ആ ആണല്ലേ ആ പിന്നെ അപ്പോൾ ഒരു വില ആ വില ഒക്കെ അതെയോ ഹമ് ആ ആ വില ഒക്കെ ഒന്ന് ചോദിച്ചിട്ടെ ഒരു അഞ്ച് അൻപതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന നമുക്ക് പറ്റുന്ന ഒരു ഇതാണെങ്കിൽ നോക്കാം ആ അതെയല്ലേ കുറച്ചു കൂടെ കുറയ്ക്കുമോന്ന് ഒക്കെ ഒന്ന് ചോദിച്ചിട്ടെ ഒന്ന് അതിനുള്ള ഇതെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ആ ആ ആ ഹ ആ ആ ആ ആ ആ ശരിയായിരിക്കും ആ ആ ആ അപ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്ക് അതിനെ കുറിച്ചൊരു ഇത് കിട്ടുമായിരിക്കും അല്ലേ അന്വേഷിച്ചിട്ട് ഒന്നു പറയണം

ആ ആ എന്നാൽ എന്നാൽ ശരി എന്നാൽ ഓക്കെ